പാട്ട് പാടാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ല ഉപദേശം കൊടുക്കും പാടുന്നതിന് സപ്പോർട്ട് കൈ അടിച്ച് സപ്പോർട്ട് ചെയ്യും പാട്ട് ഒരു പാട്ട് പാടുന്നത് ആയിരം പ്രാർത്ഥനങ്ങൾ ചൊല്ലുന്നതിനേക്കാൾ വലുപ്പമുണ്ട് ഒരു പാട്ടിന് ആ പാട്ട് മെച്ചപ്പെടുത്താൻ നന്നായിട്ട് പാടാൻ തന്നെ സപ്പോർട്ട് ചെയ്യും അപ്പോൾ പാട്ട് പാടാൻ തെറ്റി പോവുന്ന പാട്ട് നമ്മൾ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് നമുക്ക് അറിയാവുന്ന പാട്ടാണെങ്കിൽ പറഞ്ഞുകൊടുക്കും അതിന് ഒത്തിരി സന്തോഷത്തോടെ ആ പാട്ട് കേട്ടിരിക്കും കേട്ടിരുന്ന് കൈയടിച്ച് സപ്പോർട്ട് ചെയ്യും പിന്നെ പാട്ട് പാടാൻ എല്ലാവർക്കും കഴിവില്ല കഴിവുള്ളവരെ വീണ്ടും സപ്പോർട്ട് ചെയ്യും ഇത്തിരി എങ്കിലും പാടുന്നവരെ നമ്മുടെ പാടാനുള്ള കഴിവ് മെച്ചപെടുത്താൻ തന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കൈയടിച്ച് സപ്പോർട്ട് ചെയ്യും പിന്നെ പാടുന്നത് ചില കുറവുകളോ തെറ്റുകളോ ഉണ്ടെങ്കിലും ചിരിച്ച് നിന്ദിക്കുകയില്ല സന്തോഷത്തോടെ ആ പാട്ട് നമ്മൾ അംഗീകരിച്ച് കൈയടിച്ച് സപ്പോർട്ട് ചെയ്യും പിന്നെ പാടാൻ ആ കാണാതെ പാടുന്ന പാട്ടുകളാണെങ്കിൽ നമുക്ക് അറിയാവുന്ന വരികൾ മൂളി അതും സഹായിക്കും അതിന് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കും പാടാനുള്ള അവസരം കൊടുക്കും അതിനെ പ്രോത്സാഹിപ്പിക്കും പാട്ട് പാടാനുള്ള വേദികൾ പല വേദികൾ ഉണ്ട് ചെറിയ ചെറിയ കുടുംബശ്രീ പിന്നെ സിജ്ജുകൾ അങ്ങനെയുള്ള വേദികളിലെല്ലാം നമ്മൾ പാടാനുള്ള സൗകര്യം ചെയ്തുകൊടുക്കും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും അതിന് അവരെ ശക്തരാക്കി അവരെ മുൻപോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ ശ്രമിക്കുകയും ചെയ്യും അതിൻ്റെ പശ്ചാത്തലത്തിൽ ആരും പാടാതിരിക്കാൻ പാടാതിരിക്കാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല പാട്ട് തുടരാൻ തന്നെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്ത് അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവരെ അനുഗ്രഹിക്ക്